ആ സാംസംഗിൻ്റെ ഫോണാണ് ഞാന് മേടിച്ചിട്ടുള്ളത് പക്ഷേല് അത് വളരെ ഒരു ബാഡ് ഇതാണിപ്പോള് എനിക്ക് കാണിക്കുന്നത് കാരണം അത് അതിന് പെട്ടെന്നതിൻ്റെ സ്ക്രീനേല് ഭയങ്കര ക്രാച്ചിംഗായിട്ട് വരുന്നു എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കോളെടുക്കാന് പറ്റുന്നില്ല ആ അതിൻ്റെ ചാർജര് കുത്തിയാല് ചാർജിതിനകത്തോട്ട് കയറുന്നില്ല ഇതെന്തൊരു ഫോണാണ് ഞാനിത്രയും പൈസ മുടക്കിയിട്ടിത്ര പെട്ടെന്ന് ഈ ഫോണിത്രയും ബാഡായിട്ട് വന്നത് എന്തോ സർവീസാ നിങ്ങളുടേത് ഇങ്ങനെയാണോ വേണ്ടിത് ഇത്രയും പൈസയൊക്കെ മേടിക്കുമ്പോള് അതനുസരിച്ച് നിങ്ങള്ക്കതിനുള്ളൊരുത്തരവാദിത്തം വേണ്ടേ ആ പിന്നെ അത് വേണ്ട ഞങ്ങള്ക്ക് നിങ്ങളിനി വേറാരോടും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ ഞങ്ങള്ക്കിത്രയും നഷ്ടം വരികയും ചെയ്തു ഞങ്ങള്ക്കതുകൊണ്ട് പ്രയോജനം ഇല്ലാതായിപ്പോയി ഇത്രയും പൈസ ഞങ്ങള് മുടക്കി അത് ഞങ്ങള്ക്ക് വെറും ഇതായിപ്പോയി ഓക്കെ